എന്താണ് വേണ്ടത് എണ്ണയോ ഏത് കോക്കനറ്റ് ആണോ അതോ വേറെ ആണോ കോക്കനറ്റ് ഓയില് എന്നേക്ക് ഇന്ന് വേണം എന്ന് ആണോ റേറ്റ് ഇപ്പോൾ ലിറ്ററിന് ഇരുന്നൂറ് ആണ് വരുന്നത് അത് ഒരു പത്ത് ലിറ്ററിന് മുകളിൽ എടുക്കുമ്പം ചെറിയ ഒരു കുറവ് വരും എടുക്കുമ്പം ഒരു ഇരുപത്തഞ്ച് അങ്ങനെ ഹെവി ഓർഡർ ആണെങ്കിൽ കുറച്ച് കൂടിയും കുറഞ്ഞ് കിട്ടും അത് നോർമൽ എല്ലാ യൂസേജിനും പറ്റും കറി ഉപയോഗത്തിന് നല്ലതാണ് കറക്ട് ആയിട്ട് അതായത് ഞങ്ങൾ ഈ തേങ്ങ ു ഉണക്കിയത് എടുത്തിട്ട് ഇവിടെത്തന്നെ ചെയ്ത് ഉണ്ടാക്കുന്ന ആണ് അപ്പോൾ എന്ത് എല്ലാ യൂസേജിനും പറ്റും അത് നമുക്ക് കറി അങ്ങനത്തെ യൂസേജിനാണ് വച്ചാലും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ആണെങ്കിലും തലയിൽ യൂസ് ചെയ്യാൻ ആണെങ്കിലും പിന്നെ മരുന്ന് അങ്ങനത്ത കാര്യങ്ങൾ പ്രിപ്പേർ ചെയ്യുകയാണെന്നു വച്ചാലും സംഭവം ഓക്കെ ആണ് ഇതുവരെ അങ്ങന പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന വേറൊന്നും ഏഡ് ചെയ്യുന്നില്ല അത് വരും അത് അപ്പോൾത്തന്നെ എടുത്ത സാധനം ആയിരിക്കും കാരണം ഇതിന് അങ്ങനത്ത ഒരു സാധനം എടുത്ത് വച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ചൂട് ഉണ്ടല്ലൊ ആ ചൂട് മാറണ സമയത്ത് ഒരു പാട വരും അത് അങ്ങനെ അരിച്ച് കളഞ്ഞാൽ മതി ഇപ്പം നോർമൽ ആയിട്ട് വീട്ടിൽ നമ്മൾ എടുത്താലും അതെ അവസ്ഥതന്നെ വരും അത് ജസ്റ്റ് ഒരു അത് റിമൂവ് ചെയ്താൽമതി അത് ഈ ചൂടിൻ്റ പ്രശ്നം ആണ് ആട്ടുന്ന സമയത്ത് നല്ല ചൂട് ഉണ്ടാവുന്നുണ്ടല്ലൊ അപ്പം ആ ചൂട് ഇങ്ങനെ സെറ്റിൽ ആവുന്ന സമയത്ത് ഒരു ലെയർ ഉണ്ടാവുന്നതാണ് അങ്ങനെ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ തനിയെ റെഡി ആവും

എന്നേക്കാണ് വേണ്ടി വരിക ഡേറ്റ് ഒരു പത്ത് ദിവസം മുന്നെയെങ്കിലും അറിയിക്കണം അത് ഓവർ എമൗണ്ടും ആണ് കാരണം ഈ സംഭവം സ്റ്റോക്ക് ഇല്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ആൾക്കാരിൽ നിന്ന് ഇറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പം നേരത്തെ പറഞ്ഞാൽ എത്രയും നേരത്തെ പറയാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പം ഒരു ഒരു പത്ത് ലിറ്ററിൻ്റ മുകളിലൊക്കെ എന്തായാലും വാങ്ങുന്നുണ്ടെന്നു വച്ചാൽ നൂറ്റി തൊണ്ണൂറിന് തരും അതായത് പെർ ലിറ്റർ ടെൻ റുപ്പീസ് കുറയും ഇരുപത്തഞ്ച് എത്തുകയാണെന്നു വച്ചാൽ വൺ എയ്റ്റിയിൽ ഓക്കെ ആവും ബൾക്ക് ആയിട്ട് എടുക്കുമ്പം പാക്കിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അത്രയേ കുറയുള്ളൂ ബാക്കി ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും മാറുന്നില്ലല്ലൊ പക്ഷെ ബൾക്ക് എടുക്കുന്നു എന്ന് ഉള്ളതിന് ഒരു കുറച്ചു തരും ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റേറ്റ് എങ്ങനെ ആണ് ശരിക്ക് വേറെ എവിടെയും വഴി ഡിസ്കൗണ്ട് വരുന്ന പരിപാടി ഇല്ല കാരണം എടുക്കുന്ന സാധനം കൊടുക്കുന്ന സാധനത്തിനും വ്യത്യാസം ഒന്നും വരുന്നില്ല അപ്പം ഇങ്ങനെ എടുക്കുന്ന ഞങ്ങളായിട്ട് കൊടുക്കുന്നു പാക്കേഴ്സിംഗിൻ്റെ ഒരു സൈസ് കുറവ് വരുന്നതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് അത് ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തിട്ട് ആണല്ലൊ ചെയ്യുന്നത് ഓരോ കുറയ്ക്കുന്നതിലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടല്ലൊ റീട്ടെയിൽ അല്ലല്ലൊ ഞങ്ങൾ ആയിട്ട് ആട്ടുന്ന ആണ് അപ്പം അതിൻ്റ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ആ എന്തായാലും ആ ബൾക്ക് ഓർഡർ ആണെന്നു വച്ചാൽ ഇത് എല്ലാ യൂസിനും പറ്റും കേട്ടോ അത് യൂസേജ് പറയുന്നത് ഇപ്പോൾ കറിക്കും അതിന് ഒക്കെ ഉപയോഗിക്കാൻ ആയിരിക്കുമല്ലൊ അത് അല്ലാണ്ട് ഓക്കെ ആണ് ആണ് അത് നേരത്തെ പറയാൻ പറയുന്നത് ആ പാട വരുന്നത് സംഭവം ഉണ്ടല്ലൊ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അപ്പം നേരത്തെ പറഞ്ഞ എല്ലാം റെഡി ആക്കി സെറ്റ് ചെയ്ത് ആ പാട ഒക്കെ മാറ്റിയിട്ട്

അത് അത് ഇല്ല അത് മേയ് ബി അത് കംപ്ലീറ്റ് സെറ്റിൽ ആവുന്നതിന് മുമ്പ് എടുത്ത് വച്ചാൽ ചിലവിൽ വന്നിട്ടുണ്ടാവും അത് ഞങ്ങൾ ഇങ്ങനെ പാക്ക് ഓർഡർ കാര്യങ്ങൾ പറഞ്ഞ് കയിഞ്ഞാൽ ഞങ്ങളായിട്ട് റിമൂവ് ചെയ്ത് കറക്ട് ആയിട്ട് തിരിച്ച് വരും ആ അപ്പം ഓക്കെ